എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് സോഫയാണ് അപ്പോൾ സോഫ നമ്മൾ മേടിച്ചത് ഇവിടെ വീടിൻ്റടുത്തുള്ള കടയിൽ നിന്ന് തന്നെയാണ് ഇന്നലെ മേടിച്ചതേ ഉള്ളൂ അപ്പം അത്യാവശ്യം അതായത് നമുക്ക് സിറ്റിങ് ക്യാപസിറ്റിയൊക്കെ അതായത് നാലു പേർക്കിരിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ മുന്നുപേർക്കേ ഇരിക്കാൻ പറ്റുകയുള്ളൂ അതൊരു നെഗറ്റീവാണ് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അതായത് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പുറത്ത് ഇങ്ങനെ ചൂടടിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് അതായത് സ്പോഞ്ചാണ് മേലെ അടിയിൽ മാത്രമാണ് ചകിരിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഫുള്ളായിട്ട് ചകിരിയാണ് കാരണമെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോഞ്ചിലിരിക്കുന്ന സോഫ്റ്റ്നസൊന്നും ഇതിൽ കിട്ടുന്നില്ല അപ്പം ഞാനെനിക്ക് ഇതൊരു ബാഡ് എക്സ്പീരിയൻസായിട്ടാണ് തോന്നിയത്